ഒരു ചെറു കഥ എഴുതുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ അഭിലാഷമാണ് അപ്പോൾ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾക്ക് അത് പിന്നേയും പിന്നേയും വായിക്കും തോറും നമുക്ക് അത് അതിനകത്തെ തെറ്റുകൾ തിരുത്താൻ പറ്റും അങ്ങനെ തെറ്റുകൾ തിരുത്തി തിരുത്തി അത് നല്ല രീതിയിൽ എഴുതി നല്ല ഒരു കഥയാാക്കുവാൻ നമുക്ക് സാധിക്കും അതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞാൻ ഇപ്പോൾ ഞാൻ ഒരു എഴുത്ത് എഴുതാൻ തുടങ്ങിയിട്ട് ഒരു കഥ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് അത് പകുതിയായി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ അത് വായിക്കുന്തോറും നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ വരികയും നമ്മൾക്ക് അതിൻ്റെ തെറ്റുകൾ തിരുത്തി നല്ല രീതിയിൽ ഒരു കഥ ആക്കി പിന്നെ എഴുതാൻ പറ്റുകയും ചെയ്യും അതുകൊണ്ട് എഴുത്ത് നമുക്ക് ഒത്തിരി ഒത്തിരി നല്ല എഴുത്തിലൂടെ നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് ഇപ്പം മുഖത്ത് നോക്കി നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു എഴുത്തലൂടെയാകുമ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും അതേ സമയം നമ്മൾ ഇപ്പോൾ മുഖത്തു നോക്കി സംസാരിക്കുമ്പം ചിലപ്പോൾ നമ്മൾക്ക് അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യവാണെങ്കിൽ അവരുടെ മുഖം ചുളിയുന്നത് നമ്മൾ കാണണം അതുപോലെ നമ്മൾക്ക് ചിലപ്പോൾ ദേഷ്യം വരുന്നത് ദേഷ്യം നമുക്ക് അത് നിയന്ത്രിക്കാൻ പറ്റാതെ വരും അതേ സമയം നമ്മൾ ഒരു എഴുത്തിലൂടെ എഴുതുകയാണെങ്കിൽ അത് എഴുതി ഒന്ന് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് അതിനകത്ത് എന്തെല്ലാം തിരുത്തലുകൾ വരുത്തണമെന്ന് നമുക്ക് മനസ്സിലാക്കും അതുപോലെ തന്നെ ആ എഴുത്ത് സ്വീകരിക്കുന്ന ആൾക്കും അത് വായിച്ചു ആദ്യ ഒന്ന് വായിച്ചു മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ എന്തെങ്കിലും എഴുതി കൊടുത്തത് ആദ്യം അവർക്കൊക്കെ വായിക്കുമ്പഴേക്കും അത് അത്ര നല്ലതായിട്ട് തോന്നണമെന്നില്ല അതേസമയം വീണ്ടും വീണ്ടും ആവർത്തിച്ചു ആവർത്തിച്ചു വായിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ അതിനകത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന അതിൻ്റെ അന്തസത്ത മനസ്സിലാകും അങ്ങനെ അവർ അതിനെ ഉൾക്കൊള്ളും അതുകൊണ്ട് എഴുത്ത് ഒത്തിരി നല്ല ഒരു സംഗതിയാണ് എഴുത്തിലൂടെ മാത്രമേ നമ്മൾക്ക് കൂടുതൽ കൂടുതൽ അറിവും ലഭിക്കുകയുള്ളൂ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എടുത്ത്ടിച്ചതു പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് പറയുന്ന നമ്മൾക്കും നമ്മുടെ വായിൽ നിന്നത് പോയല്ലോ എന്നോർത്ത് നമ്മൾ ഒത്തിരി ഒത്തിരി വിഷമിക്കും അതേ സമയം എഴുത്തിലൂടെ ആകുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾക്ക് ഒത്തിരി നിയന്ത്രിക്കാൻ പറ്റും നമ്മൾക്ക് ആണെങ്കിലും ആദ്യമേ നമുക്ക് എന്തെങ്കിലും ഒരു ആശയം വന്നു നമ്മൾ അത് എഴുതി അപ്പം നമുക്ക് തോന്നുക ഇത് ഇത് ശരിയാകത്തില്ല ഇത് ഒത്തിരി തെറ്റായിപ്പോയി എന്ന് തോന്നുമ്പോൾ നമ്മൾ അത് വീണ്ടും ഒന്നുകൂടി ലഘുവാക്കി എഴുതാൻ നോക്കും അതുപോലെ പല പ്രാവശ്യം നമ്മൾ എഴുതി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കും ഒരു മനസ്സിന് ഒരു എഴുതി എഴുതി വരുമ്പം നമ്മൾക്ക് മനസ്സിനൊരു സുഖം കിട്ടും അതുപോലെ തന്നെ അവസാന ആകുമ്പോഴത്തേക്കിനും നമുക്ക് അത് നല്ല രീതിയിൽ എഴുതി മറ്റുള്ളവരുടെ മുമ്പിലെ അവതരിപ്പിക്കാനും പറ്റും അതുകൊണ്ട് എഴുത്താണ് ഏറ്റവും നല്ല ഒരു മറ്റുള്ളവരുടെ മുമ്പില് അവതരിിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗം